ആ പറയൂ ചേച്ചീ ആ അതേയതേയതേയതേ ലിറ്ററിപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് എണ്ണയുണ്ട് ചേച്ചിക്ക് ഏതാ വേണ്ടതെന്ന് വച്ചാൽ ഇപ്പോൾ ചക്കിലാട്ടിയ എണ്ണയുണ്ട് അല്ലാണ്ട് മെഷിനിൽ ആട്ടിയതും ഉണ്ട് ചക്കിലാട്ടിയ എണ്ണ പറയുമ്പോൾ അത് നമ്മുടെ ചൂടാവും കൊപ്ര ചൂടാവാണ്ട് ആട്ടിയെടുക്കുന്നതാണ് മെഷിനിൽ ആവുമ്പോൾ കൊപ്ര ചൂടാവും അപ്പോൾചക്കിലാട്ടിയ എണ്ണയ്ക്ക് ചക്കിലാട്ടിയ എണ്ണയാണ് കുറച്ചും കൂടി പ്രിഫെറബിൾ എന്തെന്നു വച്ചാൽ അത് ചൂടാവാണ്ട് വരണതായതുകൊണ്ട് വില വ്യത്യാസം ഒന്നുമില്ല വില ഇത് ഒരു ഇരുപത് ഉറുപ്യയുടെ വ്യത്യാസമേ ഉള്ളൂ മറ്റേത് നൂറ്റി എൺപതാണെങ്കിൽ ഇത് ഇരുന്നൂറ് അത്രയേ വ്യത്യാസം വരുള്ളൂ ഇല്ല നമ്മൾ ശുദ്ധമായിട്ട് കൃത്യമായിട്ട് വെയിലത്തിട്ടുണക്കിയ കൊപ്ര ആട്ടിയെടുക്കണതാണ് അതിൽ വേറ ഒരു എന്തുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നമുക്കാട്ടണ സമയത്ത് നമ്മുടെ മില്ലിൽ കാണുകയും ചെയ്യാം ആ നമുക്കിവിടെ നോക്കിയാൽ കാണാമല്ലോ ഇതിലിപ്പോൾ വലിയ വലിയ മാറ്റമൊന്നുമില്ല നേരെ ഇത് മെഷീനിൽ പോകുന്നു കട്ടായി വരുന്നു അരഞ്ഞു വരുന്നു അതിൽ എണ്ണ വേറെ അതു കഴിഞ്ഞ് ഫിൽട്ടർ ചെയ്യാൻ പോവും ഫിൽട്ടർ ചെയ്തു വന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് അവിടെ നിന്ന് ഒന്ന് രണ്ട് നമുക്ക് മൂന്ന് ടൈപ്പ് ഫിൽട്ടറിംഗ് ഉണ്ട് അതു കഴിഞ്ഞാൽ നേരെ എണ്ണ കിട്ടും അത്രയേ ഉള്ളൂ ഇല്ല ഉപ്പൊന്നും നമ്മൾ ആഡ് ചെയ്യാറില്ല നമ്മളിതില് ഒരു ഇതും ആഡ് ചെയ്യില്ല ഇല്ല ഉപ്പല്ല കുരുമുളക് ഞാൻ കേട്ടിട്ടുണ്ട് ഉപ്പ് ഞാനാദ്യമായിട്ടാണ് കേൾക്കണത് ഇല്ല അതിൻ്റെ ആവശ്യം വരാറില്ല നമ്മുടെ ആറുമാസം വരെയൊക്കെ ഒരു കംപ്ലയിൻ്റും ഇല്ലാണ്ട് നിൽക്കും ഇവിടെ നിന്ന് കുറെ ആൾക്കാർ മേടിച്ചിട്ട് പോകാറുണ്ട് തലയിൽ എണ്ണകാച്ചാനും ഇപ്പോൾ അങ്ങനെ ആൾക്കാരൊക്കെ കൊണ്ടുപോകാറുണ്ട് ഇല്ല നല്ല എണ്ണയാണ് നമ്മളെ വീട്ടിൽ ആ നമ്മളെ വീട്ടിൽ ഇത് തന്നെയാണ് യൂസ് ചെയ്യണത് കംപ്ലൈൻ്റ് ഒന്നും ആ ഓക്കെ ശരി ശരി